ഹലോ എനിക്ക് മധുര വരെയൊന്ന് പോകാനായിരുന്നു ഒരു ഊബറ് വേണം ടാക്സി ആണ് വേണ്ടത് നാല് പേര്ക്കിരിക്കാന് കൊള്ളുന്ന ഒരു ടാക്സി അത് എത്രയാകും ചെറുത് ചെറിയൊരു ടാക്സി ആണെങ്കിലെത്രയാകും വലുതാണെങ്കിലോ നാല് പേര്ക്കുള്ളത് മതി ഒരു ഇടത്തരം ടാക്സി മതിയാവും ഞങ്ങൾക്ക് ഒരു ഒന്ന് ഒരു ദിവസം ഫുള് ഡേ അവിടെയൊന്ന് ചുറ്റിക്കറങ്ങാന് വേണ്ടിയാണ് അവിടെയെല്ലാം കറങ്ങി പിന്നെ അന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേനുമൊരു അഞ്ചുമണിയോടുകൂടി തിരിച്ചുവരാമെന്നാണ് ഉദേശിക്കുന്നത് അതിന്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയണം അതിന്റെ നാല് പേര്ക്കിരിക്കാന് പറ്റുന്നത് മതി അപ്പോൾ അതിന്റെ വലിയ ക്യാബിനാണെങ്കിൽ വലിയ ടാക്സിയാണെങ്കിൽ എത്രയാവും ഇതിപ്പോൾ ഒരുപാട് വലുത് വേണ്ട ഇടത്തരം മതിയാവും ഞങ്ങൾക്ക് അവിടെ കൃഷ്ണന്റെ ക്ഷേത്രങ്ങളിൽ കൃഷ്ണന്റെ ആ ഒരു മധുര അതുപോലെ പല സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ അതെല്ലാമൊന്ന് കാണിക്കണം അവിടെ എല്ലാം ഒന്ന് കണ്ട് തൊഴുത് മടങ്ങാന് വേണ്ടിയാണ് അപ്പം എല്ലാത്തിനും കൂടെയുള്ള റേയ്റ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് വാട്ട്സാപ്പ് ചെയ്തേക്കണേ അതര വലിയ താമസമില്ല രാവിലെ ഞങ്ങളൊരു അഞ്ച് മണി ആവുമ്പോഴത്തേന് റെഡിയായി വരാം അഞ്ച് മണി ആവുമ്പോഴത്തേന് റെഡിയാകും ആ സമയത്ത് വന്നാൽ മതി വന്നാൽ ഒരഞ്ച് മണിവരെ അതിനിടയ്ക്കുള്ള കൂലിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞേക്കണം പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടല്സും